മലയാള ഭാഷ തമിഴിൽ നിന്നാണ് ആവിർഭവിച്ചത് എന്നാണ് ഒരു ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള ഭാഷ വളരെ ഭംഗിയുള്ളതാണ് അത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് മലയാള ഭാഷയിൽ ധാരാളം കവിതകളും കഥകളും ഇഷ്ടപ്രകാരം സിനിമകളും എല്ലാം രചിച്ചിട്ടുണ്ട് സിനിമകളെല്ലാം ആനുകാലിക പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങളെ ചിത്രീകരിക്കുന്നവയാണ് അതുകൊണ്ടു തന്നെ മലയാള ഭാഷ ഇന്ന് വളരെ അധികം പ്രചാരമുണ്ട് നമ്മുടെ ഭരണ ഭാഷയായിട്ടു പോലും മലയാളത്തിനെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു അതായത് നമ്മളുടെ നമ്മളെ ഭരിക്കുന്ന പഞ്ചായത്ത് ഓഫീസുകള് വില്ലേജ് ഓഫീസുകള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മുമ്പ് കാലത്ത് ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു അപ്ലിക്കേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നത് അതേസമയം ഇന്ന് എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ എഴുതണം എന്ന് നിർബന്ധം ആയിട്ടും ഓർഡർ ഉണ്ട് അതനുസരിച്ചാണ് ഇപ്പോൾ എല്ലാം സ്ഥാപനങ്ങളിലും മലയാളം ഭാഷയിലാണ് അച്ചടിച്ച് വരുന്നത് അതുകൊണ്ടു തന്നെ മലയാളം ഏറ്റവും പ്രചിര പ്രചാരം നേടുകയും ചെയ്തു